മതപരമായ ആചാരങ്ങളില് സാങ്കേതിക നവീകരണങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വാട്ട്സപ്പാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും യൂട്യൂബാണെങ്കിലും ഇന്സ്റ്റാഗ്രാമാണെങ്കിലും ഇതെല്ലാം നമ്മുടെ പല കാര്യങ്ങളും പല ആളുകളിലേക്കൊ അല്ലെങ്കില് നമ്മുടെ ഇപ്പോൾ ഇടവകക്കാരാണെങ്കില് അതുപോലെ തന്നെ യൂണിറ്റ് തലത്തിലുള്ള ഓരോ കാര്യങ്ങള്ക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കില് തിരുനാളുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതെല്ലാം ആളുകളിലേക്കും ഇടവകക്കാര്ക്കും അതുപോലെതന്നെ അതിരൂപതാ തലത്തില് ഒക്കെ മറ്റുള്ള ആളുകളിലേക്കെത്തിക്കാനായിട്ട് ഈ നവമാധ്യമങ്ങള് തീര്ച്ചയായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു എട്ട് പത്ത് വര്ഷം മുമ്പ് തൊട്ട് തന്നെ അത് ഉപയോഗിച്ച് വരുന്നതാണ് ഇപ്പം വളരെയധികം കൂടുതലുവായിട്ടുണ്ട് ആ ഒരു കോവിഡിന്റെയെക്കെ സമയത്താണെങ്കിലും ആളുകൾ കൂടുതല് വീടുകളിലേക്ക് മാത്രം ഒതുങ്ങിയപ്പൊ അത് നല്ല രീതീല് പ്രചാരത്തില് വരികയും കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അറിയിപ്പുകള് കോവിഡിന്റെ സമയത്താര്ക്കും വീടുക വീടുകളില് തന്നെ ആയി പള്ളിയിലേക്കൊന്നും പോകാതാകുമ്പോൾ അല്ലെങ്കില് അവ് അവിടുത്തെ ചടങ്ങുകള്ക്കൊന്നും നടക്കാതെയും പോകാതേയും ഒക്കെ ആയപ്പോൾ വീടുകളിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം കാണാനായിട്ടുള്ള ഒരു നല്ലൊരു സംവിധാനം ഒരുക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ യൂടൂബില് കുർബാനകളൊക്കെ കാണാന് സാധിക്കുന്നു അല്ലെങ്കില് അവിടുത്തെ പള്ളിയിലെ ചടങ്ങുകള് കാണാന് സാധിക്കുന്നു ഇവിടുത്തെ ഇടവകദിനം പോലും ഓണ്ലൈനായിട്ട് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമില് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു അതിന് മീഡിയ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ടാരുന്നു അത് ചെറുപ്പക്കാരാണെങ്കിലും ചെറുപ്പക്കാരിലേക്ക് കൂടുതലെത്താനും ഈ ചെറുപ്പക്കാരിലൂടെ മുതിര്ന്നവരിലേക്കും ഒക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു പല മത്സരങ്ങളും ഓണ്ലൈനായിട്ട് നടത്താനായിട്ട് സാധിച്ചു ഈ ആചാരങ്ങളും ആ ഒരു സംസ്കാരങ്ങളിലുള്ള വ്യത്യസ്തതയും ഇപ്പം ലാറ്റിന് അല്ലെങ്കില് അങ്ങനെ പല രീതിയിലുള്ള സംസ്കാരങ്ങളിലേക്കൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് ഈയൊരു രീതിയിലുള്ള നവമാധ്യമങ്ങള് ഒത്തിരിയധികം സാധിച്ചിട്ടുണ്ട് ഇത് ആളുകള്ക്കിതിനെ കുറിച്ചൊരു ഇന്റര്നെറ്റ് എന്നുള്ള ഒരു അവയര്നസ്സ് കൊടുക്കുന്നതിനൊപ്പം അവരുടെയൊക്കെ പ്രശ്നങ്ങള് പരിഹരിക്കപ്പെടാനുള്ള ഒരു കാര്യമായിട്ടും കൂടെ അത് മാറിയെന്നുള്ളതാണ് സത്യം